ഇപ്പോൾ ഈ മനുഷ്യ ജീവിതത്തിൽ തന്നെ നമുക്കിപ്പോൾ ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു അതായത് നമ്മളിപ്പോൾ നമ്മുടെ ഒരു മനസ്സ് അതായത് നമ്മുടെ മനസ്സ് നല്ല രീതിയില് ഒന്ന് ഇപ്പം എന്താ പറയുക നല്ല രീതിയില് ആക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു യാത്രയും കാര്യങ്ങളൊക്കെ എന്തായാലും അനിവാര്യമായിട്ടുള്ളതാണ് കാരണം ആ സമയങ്ങളിലെല്ലാം നമ്മള് ബൈക്കിംഗ് യാത്രയിലായിരിക്കും ചിലപ്പം ഇപ്പോൾ ബൈക്ക് എടുത്തിട്ട് നമ്മള് ഒരോ യാത്രയ്ക്ക് പോകുക അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മള് ചെയ്യുന്നത് അപ്പം നമ്മള് എല്ലാവരോടും ഇടപഴകുകയും ചെയ്യും അതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നേരിടാൻ വേണ്ടിട്ട് സാധിക്കുകയും ചെയ്യും നമുക്കിപ്പോൾ ഒരു എക്സ്പീരിയൻസ് അതായത് നമുക്ക് നമ്മുടെ മൈൻഡ് നല്ല രീതിയില് ഫ്രീ ആകും എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെണ്ടെങ്കില് അതും നമുക്ക് പോയിക്കിട്ടും അപ്പം നമ്മള് അവരോടും സംസാരിക്കും നമ്മള് ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ ദിവസം അവരുടെ കൂടെ ചെലവഴിക്കുകയും ചെയ്യാം നമുക്ക് നമ്മളുടെ ഒരു ലൈഫ് എൻജോയ് ചെയ്യുക ഇതൊക്കെ നമ്മള് എന്തായാലും എൻജോയ് ചെയ്യണ്ട ഒരു കാര്യങ്ങളാണ് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് ആകെ ഒരു ജീവിതമേ ഉള്ളൂ നമുക്ക് എപ്പഴാണ് എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല അപ്പം ആ സമയങ്ങളിലെല്ലാം നമ്മള് നല്ല രീതിയില് ചെയ്യേണ്ട ഓരോ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നമ്മള് ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ അവരുടെ സംസ്കാരവും നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിലേക്ക് കൊണ്ടു വരാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്നതാണ് അങ്ങനെ പല രീതിയില് നമുക്ക് നമ്മുടെ സംസ് നമ്മുടെ സംസ്കാരം അവരുടെ അടുത്ത് നമുക്ക് എത്തിക്കാനൊക്കെ സാധിക്കും ഇങ്ങനെത്തെ കാര്യങ്ങളിലൂടെ